ആ പറഞ്ഞോളു ആ പോവാം പോവാം ചാർജ്ജ് നമ്മൾ ഇന്ന് ഇവിടെ കിലോമീറ്ററ് അനുസരിച്ച് കിലോമീറ്ററിന് ഇരുപത്തഞ്ച് വച്ചാണ് നമ്മളിവിടെ കൂട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കെപ്പോഴത്തേക്ക് പോകാനാണിത് ആ ഓക്കേ ഓക്കേ അപ്പോൾ അപ്പോൾ രാവിലെ ഞാൻ അങ്ങോട്ടെത്താം ഇതെന്നത്തേക്കാണ് പോവേണ്ടത് ആണല്ലേ ആ അപ്പോൾ സ്ഥലം ഇതെവിടെയായിരുന്നു ആണോ ആ അപ്പോൾ രാവിലെ ഞാൻ അങ്ങോട്ടെത്തുമ്പോൾ നിങ്ങളെ വിളിക്കാം ഇല്ല അത് കുഴപ്പമില്ല ഇപ്പം നിങ്ങളുടെ ആവശ്യമല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഞാൻ നിൽക്കത്തുള്ളു അപ്പോൾ വെയ്റ്റിങ്ങ് ചാർജുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പൈസ ഇച്ചിരി കൂടും കിലോമീറ്റർ അനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് പൈസയും കൂടും നിങ്ങൾക്കത് പറ്റുമെങ്കിൽ മാത്രം നിങ്ങളതനുസരിച്ച് വിളിച്ചാൽ മതി ആ ഓക്കേ ഉണ്ട് ഉണ്ട് നമ്മൾക്ക് രാവിലെ അപ്പം ഇവടെ നിന്ന് പോയേക്കാം മണ്ണാറശാലയ്ക്കല്ലെ നമ്മൾക്ക് പോവേണ്ടത് ആ അത് പോകുന്ന വഴിക്ക് നമുക്ക് നോക്കി നോക്കിയങ്ങ് പോവാം ഇപ്പോൾ നല്ലയിടത്തുണ്ടെങ്കിൽ നിർത്താം

ഇല്ല അവടുത്തെ പ്രത്യേകതയെന്ന് വച്ചാൽ അമ്പലത്തിൽ നമ്മൾ ആദ്യം പോകുന്നതുകൊണ്ട് അവടുത്തെ അമ്പലവും ആണ് അവടുത്തെ മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയുന്ന കാര്യം പിന്നെ നമ്മളവിടുത്തെ ഓരോ ബീച്ചും അങ്ങനത്തെയൊക്കെ കാണാൻ നമ്മൾക്കവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിൽ നമ്മൾക്ക് പോകാം ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പോയിട്ട് വേറെ സ്ഥലങ്ങളിൽ പോവാം ഇല്ലില്ല വേറൊന്നും ഇല്ല ഇപ്പം നിങ്ങളിപ്പം വിളിച്ച ഓട്ടം മാത്രം ഉള്ളു ആ ഇപ്പം നിങ്ങളിപ്പം പോകുന്നത് ശരിയാണ് അപ്പോൾ താമസമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെയ്റ്റിംങ്ങ് ചാർജ്ജും കൂടും ഇപ്പം നമ്മൾ കിലോമീറ്റർ അനുസരിച്ചല്ലേ പോകുന്നത് അപ്പം വെയ്റ്റിംങ്ങ് ചാർജ്ജ് കൂടുന്ന പൈസ നിങ്ങൾ തന്നാൽ മതി അ ആ ഓക്കേ അത് കൂട്ടാം അപ്പം രാവിലെ ഞാൻ അങ്ങോട്ടെത്തിയേക്കാം ആ ആ ഓക്കേ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ